എൻ്റെ പ്രദേശത്ത് ഒട്ടുമിക്ക പത്രങ്ങളും ലഭിക്കാറുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദേശാഭിമാനി മലയാള മനോരമ മാതൃഭൂമി അങ്ങനെയുള്ള ഒരുപാട് പത്രങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് ഞങ്ങൾ മാതൃഭൂമിയാണ് വാങ്ങാറ് മാതൃഭൂമിയെന്ന് പറയുമ്പോൾ ഒരുപാട് വാർത്തകൾ ഉൾകൊളളുന്ന ഒരു പത്രമാണ് മാതൃഭൂമി അത്പോലെത്തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ കൂടുതൽ നോക്കുന്ന ഒരു കോളം എന്ന് പറയുന്നത് ഇപ്പോൾ സർ സർക്കാർ അല്ലെങ്കിൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പിന്നെ അതുപോലെത്തന്നെ ഈ സെലിബ്രേറ്റികളുടെ ഓരോ വാർത്തകളുണ്ടാവില്ലേ അത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കൂടുതലും പാർട്ടികളും ഇപ്പോൾ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വ്യവ വ്യാവസായികമായി ബന്ധപ്പെട്ടിട്ടും അത്പോലെ ഇപ്പോൾ ഏതെങ്കിലും ജോലി ഒഴിവുകളും അതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ കോളങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ജോലി ഒഴിവുകളൊക്കെ ഒരുപാട് പ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആർക്കെങ്കിലും ജോലി വേണം അല്ലെങ്കിൽ ആരെങ്കിലും ജോലി ക്ക് നോക്കുന്ന ആൾക്കാരെ നമ്മൾ എനിക്കറിയുമെങ്കിൽ ഞാനാ ഒഴിവുകളൊക്കെ വിളി അവരോട് അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്